ആ മാദിയ ഡോക്ടറാണ് ആ

കുറഞ്ഞില്ലേ മെഡിസിന് ഭക്ഷണം നേരെ കഴിക്കിണുണ്ടോ

എന്തെങ്ക് ആ കഷായം അങ്ങനത്തെ എന്തെങ്കിലും കുടിച്ചിന്നാ കുടിക്കുന്നുണ്ടോ പിന്നെ എന്തെങ്ക് ആകുന്നുണ്ടാ എന്തെങ്കിലും അസുഖം

ആ അപ്പോൾ ഇത് ഞാൻ വേറെ മെഡിസിനെഴുതിത്തരാം നിങ്ങൾ ഒന്ന് വാ ആ അപ്പോൾ ഒന്നിച്ച് ചെക്കപ്പെല്ലാം ആക്കീട്ട് ചെക്കപ്പാക്കീട്ട് ആ ഓക്കേ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ബാ ഇത് എടുത്തിട്ട് ടോക്കൺ എടുത്തിട്ട് ആ അപ്പം ആ ചെക്കപ്പാക്കീട്ട് ആ ഇഞ്ചക്ഷനെല്ലാം വെക്കുക നിങ്ങൾക്ക് കുറയാൻ വേണ്ടീട്ട് വന്നിട്ട് ഇയ്യോ പെയ്നെല്ലാം കുറയാൻ വേണ്ടീട്ട് ഇഞ്ചക്ഷന് ഇതാക്കാം ആ ടാബ്ലറ്റ് മാറ്റീട്ട് തരാം ആ നേരെ ഭക്ഷണം കഴിക്കണം പിന്നെ സമയത്തിന് ഇത് ഗുളികയെല്ലാം കഴിക്കണം അന്നെങ്കിലല്ലേ കുറയൂ ആ പുറത്തത്തെ പുറുത്തു ഓക്കേ പുറത്തത്തെ ഫുഡ് കുറച്ചു കുറക്കണം ആ ഓക്കേ നിങ്ങൾ ഒന്ന് വാ എന്നെ കാണാനൊന്നു വാ ഞാനൊന്ന് എല്ലാം ചെക്കപ്പെല്ലാം ചെയ്തിട്ട് ഇതാക്കാം നിങ്ങൾ ഒന്ന് നാളെന്നെ വാ ഒന്ന് കോളാക്കീട്ട് ഒന്ന് നാളെ വാ ഓക്കേ ആ ടോക്കണെടുത്തിട്ട് വാ ഓക്കേ ഞാനെല്ലാം ചെക്കപ്പുമെല്ലാം ചെയ്തിട്ട് ഫുള്ള് ഇഞ്ചക്ഷനെല്ലാം വെച്ചിട്ട് തരാം ഒക്കെ ഓക്കേ